എങ്ങനെ നമുക്ക് പ്രീവെഡ്ഡിങ് ഷൂട്ട് മൊത്തത്തിലാണോ നമുക്കൊരു തെ തെർറ്റീൻ തൗസൻഡ് തൊട്ട് തുടങ്ങാം ഓക്കെ നമുക്ക് സ്റ്റാർട്ടിങ് ഇപ്പോൾ മുപ്പതിനായിരം രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നത്തേക്കാണ് ഫങ്ക്ഷന് എന്നത്തേക്കാണ് അടുത്ത മാസം അല്ലെ ഓക്കെ നിങ്ങളെങ്ങനെയാണ് ഇതിപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റാണ് ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾ നോക്കീട്ട് നിങ്ങൾക്ക് ആൽബം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിന് വേറെ അഡിഷണൽ പേ ചെയ്യണം പിന്നെ ആൽബം വേണം വീഡിയോഗ്രാഫി അങ്ങനെന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വീഡിയോ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെല്ലേ നമുക്കൊരു ട്വന്റി ഫൈവ് ആ ഒരു ബഡ്ജറ്റ് ഒക്കെ വരും ടോട്ടൽ ആൽബവും വീഡിയോ ഷൂട്ടും പ്രീവെഡ് ഷൂട്ട് പിന്നെ വെഡ്ഡിംഗിന്റെ അന്നത്തെ വീഡിയോ എല്ലാം കൂടെ കൂട്ടീട്ട് അത്ര രൂപ വരും ഒരു സെവെൻറ്റി ഫൈവ് വരും നമ്മൾ വയനാട്ടിൽ തന്നെ ആണ് നമ്മൾ മാനന്തവാടി ആണ് വേറെ സ്ഥലെന്തെങ്കിലും ഒക്കെ നിങ്ങൾ കണ്ടുവെച്ചിട്ടുണ്ടോ അതോ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യാണോ ഓക്കെ അവിടെന്ന് ചെയ്യാംല്ലേ

ഓക്കെ ഡേറ്റ് അപ്പോൾ എപ്പോഴ്ത്തേക്കാണ് ഫങ്ക്ഷൻ ആണെങ്കിൽ നമുക്കിപ്പോൾ അതിനുമുൻപ് തന്നെ പ്രീ വെഡ്ഡിങ് ഷൂട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ ഓക്കെ നമുക്കിപ്പോൾ നെക്സ്റ്റ് മന്ത് ഒരു തേർഡ് വരെയൊക്കെ നമുക്ക് പ്രോഗ്രാം ഉണ്ട് പരിപാടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീയാണ് ഓക്കെ അപ്പോൾ ഓക്കെ നിങ്ങളപ്പോൾ നമ്മളെ ഫിക്സ് ചെയ്യാണെങ്കിൽ ചെറിയ അഡ്വാൻസ് പേയ്മെന്റ് എന്തെങ്കിലും വേണ്ടിവരും ചെയ്യുല്ലോലെ

അഡ്വാൻസ് നിങ്ങളിപ്പോൾ ഒരു ടെൻ തൗസൻഡ് എങ്കിലും തരണം എന്നിട്ട് ബാക്കി ഞങ്ങൾ വന്ന് നോക്കീട്ട് അറേഞ്ച് എല്ലാം ചെയ്തിട്ട് നിങ്ങൾ ബാക്കി പേയ്മെന്റ് ചെയ്താൽ മതി

ആ ഓക്കെ ഓക്കെ നിങ്ങൾ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഓക്കെ ഓക്കെ ഓക്കെ